അതുങ്ങളെ പക്ഷിപ്പനി ആണ് മെയിനായിട്ടും ഈ കോഴികളെ ബാധിക്കുന്ന ഒരു പിന്നെ രോഗമായിട്ട് കണക്കാക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ അതുങ്ങളെ ഈ പിന്നെ ചില ജന്തുക്കൾ അതായത് പട്ടി പൂച്ച പിന്നെ അതൊക്കെ അതുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞു കോഴികളായിരിക്കുമ്പോൾ അതുങ്ങളെ പിന്നെ ഈ ഇതുങ്ങൾ ആരാ കുഞ്ഞുകോഴികളായിരിക്കുമ്പോൾ അതുങ്ങളെ പിന്നെ ഈ പരുന്ത് പിന്നെ കാക്ക ഏറുമുള്ളെന്നു പറഞ്ഞ് ഒരു ജീവി അത് അതൊക്കെ അതുങ്ങളെ പിന്നെ പിടിച്ചുകൊണ്ടുപോയി തിന്നാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ കീരിയുടെ ഒക്കെ പിന്നെ ഉപദ്രവവും ഉണ്ടാകാറുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടും പിന്നെ കോഴികളെ ബാധിക്കുന്ന പിന്നെ ചില പ്രശ്നം ഇത് പിന്നെ ഒന്നുകിൽ പിന്നെ തടയാനായിട്ടുള്ള സാഹചര്യമെന്നുപറയുന്നത് നമ്മൾ ഇതുങ്ങളെ പിന്നെ എങ്ങനെയെങ്കിലും പിന്നെ ഒരു നമ്മൾ കൂട്ടിൽ കൂട്ടിൽ അടച്ചുവളർത്തുക അതായത് ഇപ്പോൾ ഒരു ഫാം മാതിരി ഒക്കെ ചെയ്ത് അതുങ്ങളെ അതിൽ ഇട്ട് വളർത്തുക വളർത്തിയാൽ പിന്നെ കുറേയൊക്കെ അതുങ്ങളെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെത്തന്നെ ഇതുങ്ങളെ നമുക്ക് പിന്നെ മരുന്നൊക്കെ കൊടുത്ത് പിന്നെ ഇപ്പം പിന്നെ കോഴി കുഞ്ഞുങ്ങൾ ഉണ്ടായി അതുങ്ങൾക്ക് ചില പിന്നെ മെഡിസിൻസ് ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെ മനുഷ്യകുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നതുപോലെത്തന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കും പിന്നെ മാസംതോറും പിന്നെ അല്ലെങ്കിൽ ആഴ്ച്ച തോറും ഒക്കെ ചില പിന്നെ മരുന്നുകളൊക്കെ നമ്മൾ അതുങ്ങൾക്ക് കൊടു അവർക്ക് അതുങ്ങൾക്ക് കൊടുക്കുന്നതുവഴിയായിട്ട് അതുങ്ങളെ പിന്നെ നിലനിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലോക്കെ പോഷകാഹാ ആഹാരങ്ങള് പിന്നെ പിന്നെ മൃഗ ഡോക്ടർമാരെയൊക്കെ പിന്നെ ഈ അവരെ നമ്മൾ കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ അവർ നല്ല മരുന്നുകളൊക്കെ എഴുതിത്തരും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഇതുങ്ങളെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അതുങ്ങളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ അത് ഇതുങ്ങളുടെ ആരോഗ്യപരിപാലനത്തിന് വലിയൊരു പിന്നെ മുതൽക്കൂട്ടാണ് അതുങ്ങളെ നമുക്ക് വളരെയെറെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതൊക്കെയാണ് ഉള്ളത്